നമ്മുടെ സംസ്ഥാനത്ത് മതപരമായിട്ടുള്ള ആരാധനാലയങ്ങള് ഇഷ്ടം പോലെയുണ്ട് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക മതേതരത്വം ഒഴുകുന്ന ഒരു സ്ഥലം ആണ് അപ്പം ആരാധനാലയങ്ങൾ കുറെ ഉണ്ട് അതായത് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ആണെങ്കിലും ക്രിസ്ത്യൻ മതത്തിൽ ആണെങ്കിലും ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ പെട്ടവർ ആണെങ്കിലും അവർക്ക് ആരാധനാലയങ്ങളില് നല്ല രിതിലുള്ള കാര്യങ്ങൾ കാഴ്ച്ച വയ്ക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതായത് ഇപ്പം നമ്മുടെ ഹിന്ദുക്കൾക്ക് ആണെങ്കില് കുടുതലായിട്ടും അമ്പലങ്ങള് അങ്ങനത്തെ കാര്യങ്ങളാണ് കുടുതലായിട്ട് ഉള്ളെ അമ്പലങ്ങള് കുടുതലായിട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മെയിൻ ആയിട്ട് ഉള്ള ഉത്സവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ തൃശ്ശൂർ പൂര് പുരം ഉത്സവമാണ് അപ്പം തൃശൂരാണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു പൂരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അമ്പലങ്ങൾ ഇഷടംപോലെ ഉണ്ട് ഗുരുവായൂര് ഗുരുവായൂര് അമ്പലമാണ് പിന്നെ കുറച്ചുകൂടെ വലിയതായിട്ടുള്ള ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണൂര് ഉള്ള മുത്തപ്പൻ്റെ അമ്പലം അതും നല്ല രീതിയിൽ ഉള്ള ഒരു അമ്പലം ആണ് നമുക്ക് ആർക്ക് വേണോങ്കിലും അവിടെ കയറി പോകാം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ അത് ഉണ്ട് അപ്പം പല തരത്തിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പള്ളികള് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മുടെ എറണാകുളത്തുള്ള ഇടപ്പള്ളി എന്ന് പറഞ്ഞ പള്ളി അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പള്ളിയാണ് പിന്നെ നമ്മുടെ കോഴിക്കോട് തന്നെ ഉണ്ട് കൊടുങ്ങാക്കാട് പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ട് അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ അവരുടെ പള്ളിയാണ് അവിടെ നമ്മള് എന്ത് കാര്യം പറഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടന്ന് കിട്ടാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമാണ്